എനിക്ക് ഏറ്റവും ഇഷ്ടം ഡിജെ പോലുള്ള ഡാൻസുകൾ ആയിരിക്കും കാരണം നമ്മൾ ഒരു കല്യാണവേദിയിൽ ആണെങ്കിലും നമ്മൾ ഒരു ടൂർ പോവുകയാണെങ്കിലും നമ്മള് ക്ലാസിക് ഡാൻസ് അല്ലല്ലോ കളിക്കാൻ നമ്മൾ ആ പാട്ടിന് അനുസരിച്ചുള്ള ഡാൻസല്ലേ കളിക്കുക അപ്പം എനിക്ക് കൂടുതലും ഡിജെ ഡാൻസ് അങ്ങനെയുള്ള ഡാൻസുകൾ ആയിരിക്കും ഇഷ്ടം ഒരു കല്യാണ പരിപാടി നോക്കുവാണെങ്കിലും അവിടെ നമ്മള് വേദിയില് ഒരു സിനിമ പാട്ട് നല്ല അടിച്ചുപൊളി ഒരു പാട്ട് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് ആയിരിക്കും എനി എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും ഞാൻ ഞങ്ങൾ ഒന്നു കൂടി എൻജോയ് ചെയ്യുന്നതോ ഒരു ഡാൻസും പിന്നെ എന്ന് പറയാന് ഇപ്പോൾ ടൂർ പോവുകയാണെങ്കിലോ നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടി കൂടുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണെങ്കിലും നമ്മുടെ എൻജോയ്മെന്റിന് നല്ല പാട്ട് പാട്ടുകൾ ഇട്ടിട്ട് നമ്മൾ ഡാൻസ് കളിക്കുക നമ്മുടെ എൻജോയ്മെന്റിനും നമ്മുടെ സന്തോഷത്തിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ ഡാൻസിൽ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം